ഗ്രാമങ്ങളിൽ നർത്തകർ നേരിടുന്ന സഹായഭാവം വളരെ കുറവാണ് കാരണം പരിശീലകരുടെ എണ്ണം കുറവാണ് പരിശീലകരുടെ എണ്ണം കുറവായതിനാൽ മറ്റ് സ്ഥലങ്ങളിൽപ്പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മാതാപിതാക്കൾ മക്കളെ വിടുന്നില്ല അവരുടെ കലാബോധം നഷ്ടപ്പെട്ട് പോകുന്നു നഗര പ്രദേശങ്ങളിലാണെങ്കിൽ കലാലയങ്ങളോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചുള്ള എന്താ പറയാ സ്റ്റേജുകളിറക്കി മക്കളെ പ്രോത്സാഹിപ്പിച്ച് എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറയാണ് നഗരങ്ങളിൽ താമസിക്കുന്നത് എന്നാൽ മറിച്ച് ഗ്രാമങ്ങളിലുള്ളവർ ദൂരെപ്പോയി മക്കളെ വിടാനുള്ള പേടി ഭയം മൂലം നർത്തകരുടെ അഭാവം കുറവായതിനാലും പരിശീലനം കുറവായതിനാലും ദൂരെ സ്ഥലങ്ങളിലേക്ക് വിട്ട് മക്കൾ പഠിക്കുന്നില്ല അവരുടെ കലാബോധം വളരെ നശിച്ചുകൊണ്ടിരിക്കുന്നയാണ് ഗ്രാമപ്രദേശങ്ങളിൽ നർത്തകരുടെ സഹായമില്ലാത്തതിനാൽ പരിശീലനവും കുറവാണ്